പറഞ്ഞോളൂ അതെല്ലോ ഓക്കേ ആ ആ ഏതാണ് ബ്രീഡ് ആണോ പെണ്ണോ ആ ആ എന്താണ് ബുദ്ധിമുട്ട് ആണല്ലേ എണീക്കുന്നില്ല ആ ആ നല്ലോണം ഓടി ചാടി നടന്നതാണോ ഓടി ചാടി നടന്നുകൊണ്ടിരുന്നതാണോ എത്ര വയസ്സായി ഓക്കേ ഓക്കേ ക്രോസ്സ് ചെയ്യിച്ചായിരുന്നോ ഈയിടെയെങ്ങാനും ആ വാക്സിൻ എടുത്തോ വാക്സിനേഷൻ ആ നമുക്കിവിടെ വാക്സിൻ എടുക്കുന്നുണ്ട് വിര മരുന്ന് കൊടുക്കുന്നുണ്ട് ആ അങ്ങനെ എല്ലാം ഉണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് വാക്സിൻ എടുക്കാഞ്ഞത് അത് മസ്റ്റ് ആയിട്ട് എടുക്കേണ്ടതല്ലായിരുന്നോ ആ ഓ അങ്ങനെ മറക്കാൻ പാടുണ്ടോ ഇതൊക്കെ ആ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതാണോ ആ അപ്പോൾ മസ്റ്റ് ആയിട്ട് വാക്സിൻ എടുക്കണം ആ ആ വിര മരുന്ന് കൊടുത്തിട്ട് എത്ര നാളായി ആ ഓക്കേ ഓക്കേ അപ്പോൾ ചിലപ്പോൾ അതിന്റെ ശല്യം അല്ലായിരിക്കും ആറുമാസം കുടുമ്പോഴാണ് വിര മരുന്ന് സാധാരണ കൊടുക്കാറ് അപ്പോൾ പിന്നെ കുഴപ്പമില്ല അതിന്റെ ശല്യമൊന്നും ആവില്ല അഞ്ച് വയസ്സ് ആയില്ലേ ചിലപ്പോൾ അതിന്റേതായ എന്തെങ്കിലും ക്ഷീണം ആയിരിക്കാം എന്തായാലും നമുക്ക് നോക്കാം നാളെ നിങ്ങൾ എന്താണ് ഇന്നിപ്പോൾ ഇത്ര സമയമായില്ലേ ഇപ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞൊരു മീറ്റിങ്ങ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നാളെ കൊണ്ടുവാ നമുക്ക് നോക്കാം പത്ത് മണി തൊട്ടാണ് ഞാൻ നോക്കാൻ തുടങ്ങുന്നത് ആ അപ്പോൾ നിങ്ങളൊരു പത്ത് മണി ആകുമ്പോൾ വന്നാൽ മതി വേറെ ഏതെങ്കിലും പട്ടിക്കുട്ടികൾ ഉണ്ടോ വീട്ടിൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ആ ഓക്കേ ഓക്കേ ആ മൊത്തത്തിൽ ചെക്കപ്പ് നമുക്ക് നടത്താം എന്താണെന്ന് വെച്ചാൽ അതി ആ അതെ ആ മറ്റ് പട്ടികൾ വല്ലതും വന്ന് കടിച്ചതായിരിക്കുമോ അങ്ങനെ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് മറ്റ് തെരുവ് നായകളുടെ ശല്യം ഉള്ളതാണോ അല്ല അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ല ആ എന്തായാലും നമുക്ക് നോക്കാം ഉം ഉം പൊമറേനിയൻ ആണ് ബ്രീഡ് എന്നല്ലേ പറഞ്ഞത് ആ ആ നല്ല ബ്രീഡിൽ പെട്ട പട്ടിയാണ് ആ ആ എന്താ ക്ഷീണം എന്ന് നോക്കാം ഈ രോമം പൊഴിയുന്ന അസുഖം ഉണ്ടോ ക്ഷീണം മാത്രമേ ഉള്ളൂ ആ ഫുഡ് ഒന്നും കഴിക്കുന്നില്ലല്ലേ ഒട്ടും

ആ ആ നമുക്ക് നോക്കാം നോക്കാം ഉം ആ ശരി ഓക്കേ നിങ്ങൾ അപ്പോൾ നാളെ വന്നാൽ മതിയേ ആ ഓക്കേ ഓക്കേ ഓക്കേ